എൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളെന്നുവച്ചാല് കോഴിക്കോട് ജില്ലയില് നോക്കാൻ കോഴിക്കോട് ജില്ലയിൽ നിരവധി കോളേജുകളില് വിവിധ വിഷയങ്ങളില് ബിരുദ ബിരുദാനന്തര ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഗവേഷണ കോഴ്സുകൾ തന്നെ നടത്തുന്നുണ്ട് ഈ കോളേജുകള് പലതും കാലിക്കറ്റ് സര്വകലാശാലയുമായി ബന്ധപ്പെട്ടു പ്രവർത്തിക്കുന്നതായ ചില പ്രധാന കോളേജുകളും അവയിൽ ലഭ്യമായ കോഴ്സുകളും ചുരുക്കമായി നമുക്കു പറയാം പ്രധാന കോളേജുകൾ കോഴ്സുകളെന്നു പറഞ്ഞാല് ഫാറൂഖ് കോളേജാണു പ്രധാന കോളേജ് അതായത് ബിരുദ കോഴ്സ് ഇംഗ്ലീഷ് മലയാളം അറബി ഇക്കണോമിക്സ് സോഷ്യോളജി ഫിസിക്സ് എക്സെട്രാ സൂവോളജി കമ്പ്യൂട്ടർ സയൻസ് കോമേഴ്സ് ബിസിനസ്സ് തുടങ്ങിയ പല പല കോഴ്സുകളുണ്ട് ഇതില് ബിരുദാനന്തര ബിരുദ കോഴ്സ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് അറബി എക്കണോമിക്സ് സുവോളജി കോമേഴ്സ് ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ മൾട്ടി മീഡിയ ഇതുമുണ്ട് അതിപ്പോള് അടുത്തതു നമുക്ക് കോളേജ് നോക്കുകയാണെങ്കില് പ്രൊവിഡൻസ് വിമെന്സ് കോളേജുണ്ട് അതായത് നമ്മുടെ കോഴിക്കോട്ടു തന്നെയുള്ള ഒരു കോളേജാണ് അധികും പിന്നെ നമുക്കു പല പല കോഴ്സുകൾ നമുക്കു കാണാന് സാധിക്കുന്നുണ്ട് ഫിസിക്സ് കെമസ്ട്രി മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് ബോട്ടണി സൂവോളജി സൈക്കോളജി മലയാളം ഹിന്ദി ഫ്രഞ്ച് ഇംഗ്ലീഷ് ഹിസ്റ്ററി ടൂറിസം ഇക്കണോമിക്സ് കൊമേഴ്സ് ബിസിനസ്സ് അഡ്മിനിസ്ട്രേഷൻ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് മാനേജ്മെന്റ് അതില് വിവിധ വിഷയങ്ങൾ അവിടെ പി ജി കോഴ്സുകുകൾ ക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഗവൺമെന്റ് ആർട്സ് ആൻ് സയൻസ് കോളജ് മീഞന്ത എന്താണ് ഇപ്പോഴതാണ് ഇവിടെ കോഴിക്കോട് ജില്ലയിലെ കോളേജാണ് ബി എ ഇംഗ്ലീഷ് പിന്നെ ലാംഗ്വേജ് പിന്നെന്താ ബി എസ് സി ഫിസിക്സ് ബി എസ് സി ജോളജി ബി കോം ബിരുദാനന്തരം നോക്കുകയാണെങ്കില് എം എ ഹിസ്റ്ററിയുണ്ട് എം എ എക്കണോമിക്സുണ്ട് അങ്ങന പലുതുമുണ്ട് ഗവേഷണ കോഴ്സ് ഫിസിക്സ് ഹിന്ദി അങ്ങനെ പല പല വിഷയങ്ങളായിട്ട് അവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ വിദ്യാർത്ഥികൾക്കു പുറത്തേക്കു പോകേണ്ടിവരുന്ന സാഹചര്യം നമ്മള് ആണെങ്കില് പലരും ഇന്ന് അബ്രോഡ് സ്റ്റഡീസാണ് ആഗ്രഹിക്കുന്നത് കാരണം പുറത്ത് യൂണിവേഴ്സിറ്റി പോയിരിക്കുമ്പോള് അവർക്കു മനസ്സില് ഒരു സുഖം അവര് വലിയ എന്തോ പഠിച്ചു എന്നുള്ളതു കിട്ടുന്നുണ്ട് അതുകൊണ്ടു തന്നെ പലരും അബ്രോഡ് യൂണിവേഴ്സിറ്റി പോയി എം ബി ബി എസ് ഒക്കെ പഠിച്ച് അതി ള്ള ഡോക്ടർ ന്നുണ്ട് കോഴിക്കോട് ജില്ലയിലെ കോളേജുകള് വിവിധ വിഷയങ്ങളില് ബിരുദ ബിരുദാനന്തര ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത് എന്നാൽ തന്നെ ചില പ്രത്യേക വിഷയങ്ങളില് കോഴ്സുകൾ ലഭ്യമല്ലാത്തതിനാല്ത്തന്നെ വിദ്യാർത്ഥികൾക്കു പുറത്തേക്കു പോകേണ്ടി വരാം ഉദാഹരണത്തിന് മെഡിക്കൽ സെന്റര് ഫാർമസി നേഴ്സിംഗ് ഈ മേഖലകൾ പഠനമാഗ്രഹിക്കുന്നവര്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥാപനങ്ങൾ ലഭ്യമാണ് പക്ഷെ പ്രവശന മത്സരം വളരെ കഠിനമായതുകൊണ്ടുതന്നെ അവർ പുറത്തേക്കു പണം സ്വരൂപിച്ചുകൊണ്ടു പുറം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാന് പോകുന്നു പ്രൊഫഷണൽ കോഴ്സ് ഐ ഐ എം കോഴിക്കോട് പോലുള്ള സ്ഥാപനങ്ങൾ മേജര് കോഴ്സ് നല്കുന്നു പക്ഷെ പ്രവേശന നടപടി വളരെ കഠിനമാണ് വിശേഷിച്ചുള്ള പി ജി കോഴ്സുകള് ചില പ്രത്യേക പി ജി കോഴ്സുകൾ ലഭ്യമല്ലാത്തതിനാല് വിദ്യാർഥികള് മറ്റു ജില്ലകളിലേക്കോ സംസ്ഥാനങ്ങളിലേക്കോ രാജ്യത്തിനു പുറത്തേക്കോ അവർ പോകുന്നു അവിടെ പോയി നല്ല രീതിയിൽ തന്നെ അവരെന്താണ് പി ജി കോഴ്സുകൾ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽത്തന്നെ പഠനം നടത്തി അവര് തിരിച്ചുവരുന്നു നല്ല ജോബുമായിട്ട് അവര് പുറത്ത് ഫാമിലിയുമായിട്ട് സെറ്റാവുന്ന അവസ്ഥകൾ നമുക്കു കാണൻ സാധിക്കുന്നുണ്ട് അതായത് നമ്മുടെ ജില്ല കോഴിക്കോട് ജില്ല നമ്മുടെ കേരളത്തില്ത്തന്നെ പല രീതിയിലുള്ള കോഴ്സുകളും പല യൂണിവേഴ്സിറ്റികളുമുണ്ട് പക്ഷെ വിദ്യാർത്ഥികൾക്കു ചില സമയത്തു കഠിന പരീക്ഷണം പരീക്ഷ ആയതുകൊണ്ടു ചില എൻട്രൻസ് ബുദ്ധിമുട്ടുകൊണ്ട് അവർ പുറത്തുപോയി അതിനുള്ള സഹായങ്ങൾ തേടുന്നുണ്ട്